മതം ഇന്ത്യൻ സമൂഹത്തിൽ ഒരുപാട് പങ്കുവഹിക്കുന്നുണ്ട് മതത്തെ പറ്റിയുള്ള അടികൾ വഴക്കുകൾ ദിവസേന കൂടിക്കൂടിയാണ് വരുന്നത് നമ്മളുടെ ഇന്ത്യയിൽ തന്നെ പല പല രീതിയിലുള്ള മതങ്ങളുണ്ട് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം അതും അതാണ് ഏറ്റവും കൂടുതൽ ഉണ്ടെ ഉണ്ടെന്നുണ്ടെങ്കിലും മറ്റു പല മതങ്ങളും ഗുജറാത്ത് അങ്ങനെ പല മതങ്ങളും നമുക്ക് ഇവിടെ ഉണ്ട് നമ്മുടെ സിക്ക് അങ്ങനെ പല മതങ്ങളും നമ്മുടെ ഇന്ത്യയിലുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിച്ചു വന്നുകഴിഞ്ഞാൽ ഒരുപാട് പറയാൻ തന്നെ ഉണ്ട് സ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കലഹങ്ങൾ ഉണ്ടാക്കുന്നത് പ മതത്തിനെ പറ്റിയാണ് മതം പിന്നെ മതത്തെ അനുകൂലിക്കുന്നവരുണ്ട് മതത്തെ മതമെന്നത് ഇല്ല എന്നു പറയുന്നവരുണ്ട് അങ്ങനെ പല രീതിയിലാണ് ആളുകളുള്ളത് അങ്ങനെ പല മതങ്ങളിൽ പലതാണ് പറയുന്നത് എന്നുണ്ടെങ്കിലും ഏകദേശം എല്ലാ മതങ്ങളിലും പറയുന്ന കാര്യം ഒന്നാണ് എന്നാണ് എൻ്റെ ഒരു ഇതിൽ എനിക്ക് മനസ്സിലാകുന്നത് മതങ്ങൾ തമ്മിൽ പ നമ്മൾ കലഹങ്ങളുടെ ആവശ്യമില്ല എന്നതാണ് എൻ്റെ കാര്യത്തിൽ എൻറ്റൊരു ഞാനൊരു പൗരനെന്ന നിലയ്ക്ക് ഞാൻ പറയുന്നത് നമ്മുടെ മതങ്ങൾ നമ്മുടെ മനസ്സിൽ മാത്രം മതി അല്ലാതെ നമ്മൾ പുറത്ത് കാണിക്കേണ്ടതില്ല നമ്മൾ നമ്മുടെ മനസ്സിൽ വെച്ച് നമ്മൾ ആരാധിക്കുന്ന എന്തിനെയായാലും അതിനെ നമ്മൾ ആരാധിക്കുക എന്നതു മാത്രമാണ് ഞാൻ കാണുന്നത് ഞാൻ അറിയുന്നതും ഞാൻ കാണുന്നതും ഞാൻ ആരുടെ അടുത്താണെങ്കിലും അങ്ങനെ മാത്രമേ ഞാൻ പറയുകയുള്ളൂ മതത്തിൻ്റെ പേരിൽ നമ്മൾ അടിയുണ്ടാകേണ്ടതല്ല നമ്മൾ മനുഷ്യരാണ് മനുഷ്യരെന്നു പറയുമ്പോൾ മതം എന്നുള്ളത് നമ്മൾ ഒരിക്കലും അടി ഉണ്ടാക്കാനോ കലഹത്തിനോ ഉള്ളതല്ല മ ഒന്ന് മതം എന്നൊരു പേരുകൊണ്ട് നമ്മൾ ഒരിക്കലും അടികളോ വഴക്കുകളോ ഒന്നും ഉണ്ടാക്കരുത് മതം എന്നത് അവർ ഓരോ കാറ്റഗറീസ് ഓരോരുത്തർ ആക്കി വെച്ച് അത് ഒരിക്കലും അടിക്കോ വഴക്കിനോ വേണ്ടിയല്ല ഓരോ മതത്തിലും ഇങ്ങനെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും കലഹ ഇന്ത്യയിലാണെന്നു തോന്നുന്നു ഏറ്റവും കൂടുതൽ മതപരമായി കലഹങ്ങൾ നട അല്ല ഇന്ത്യയിൽ കുറവാണ് എന്നാൽ നമ്മൾ മതപരമായിട്ടുള്ള അടികൾ നോക്കുകയാണ് വഴക്കുകളും അങ്ങനെയുള്ള നോക്കുകയാണ് പല സ്ഥലത്തും ഇപ്പോൾ തന്നെ പല രാജ്യങ്ങളിലും മതങ്ങൾക്ക് പുറകിൽ ആ വഴക്കുകൾ അടികൾ അങ്ങനെ യുദ്ധങ്ങൾ വരെ നടക്കുന്നുണ്ട് ഇന്ത്യയിൽ അത്ര ഇതില്ലെങ്കിൽ പോലും ഇന്ത്യയിലും ഒരുപാട് മതത്തെപ്പറ്റി ഇത് മതത്തെപ്പറ്റി ഒരുപാട് മതങ്ങൾ തമ്മിലുള്ള വഴക്കുകൾ കലഹങ്ങളുണ്ടാകുന്നുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിൽ അങ്ങനെ വലിയ ഇതില്ലെങ്കിലും കൊ കുറവാണ് എന്നു വേണമെങ്കിൽ പറയാം എന്നാലും ഒരുപാട് ഉണ്ട് അടികളും വഴക്കുകൾ പോലെ മ മതകലഹങ്ങൾ ഒരുപാട് നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട് അപ്പം അതൊക്കെ അറിഞ്ഞു നമ്മൾ ഇത് പ പങ്കു വെയ്ക്കുക ഞാൻ എൻ്റെ ഒരു ഇത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മത മതമോ ഇതു വെച്ചോ നമ്മൾ കലഹങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല മതങ്ങളെന്നു പറഞ്ഞാൽ നമ്മുടെ മതം നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നാൽ മതി ഇല്ലാതെ പുറത്തു കാണിക്കാനുള്ളതല്ല നമ്മൾ നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ ആരാധിക്കുന്നതിനെ നമ്മൾ ആരാധിക്കുക ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്